പൊതുവെ കാസർഗോഡ് ജില്ലയിൽ ഉത്സവം എന്നു പറഞ്ഞാൽ നമ്മൾ അമ്പലം അമ്പലം ബേസ് ചെയ്തിട്ടുള്ള ഉത്സവമാണ് മൂന്ന് നാല് ദിവസത്തെ ചടങ്ങ് എല്ലാം ഉണ്ടാവും അമ്പലത്തിൽ പ്രതിഷ്ഠാദിവസമായിരിക്കും ലാസ്റ്റ്ൻ്റെ അന്ന് വെടി ഉണ്ടാവും പിന്നെ ആ അതേ ഇതിൽ ഉത്സവ സമയത്ത് നമ്മൾ പിള്ളേരെ കൊണ്ടുള്ള കുമിത്ത ഭജന പിന്നെ യക്ഷഗാന പരിപാടി പിന്നെ നാടകം പിന്നെ ഗാനമേള അങ്ങനത്തെ സ്റ്റേജ് പ്രോഗ്രാം എല്ലാം ബെക്കും പിന്നെ കാസർഗോഡ് നാട്ടിൽ പൊതുവെ പുറമെ നിന്നുള്ള ഇത് ഇത് ഇഷ്ടമായിട്ട് വരുന്ന വിദേശികൾ ഇംഗ്ലീഷ്കാർ എല്ലാം വരും നമ്മൾ നാട് കാണാൻ വേണ്ടി അപ്പോൾ ഇവിടെ പൊതുവെ എല്ലാവരും ഫസ്റ്റ് മദുർ ടെമ്പിളിൽ നിന്നാണ് തുടങ്ങൽ മദുർ ഇവിടത്തെ മെയിൻ ടെമ്പിൾ ആണ് മദുർ നമ്മളെ മദുർ ടെമ്പിളിൽ നിന്നാണ് തുടങ്ങുന്നത് അവിടെ പോകും അവിടുത്തെ എല്ലാ സംസ്കാ എല്ലാ രീതിയിലുള്ള ഇത് എല്ലാ രീതിയിൽ എന്ന് പറഞ്ഞെങ്കിൽ നല്ലൊരു ടെമ്പിൾ മദുർ നല്ല ഫേമസ് ടെമ്പിൾ ആണ് നമ്മളെ ഗണപതിയാണ് അവിടെ ഉള്ളത് അവിടെ പോകും അവിടെ ചുറ്റും എല്ലാം കാണും പിന്നെ അനന്തപുരം ശ്രീ പദ്മനാഭ സ്വാമി ക്ഷേത്രം അത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഉള്ളതാണ് ആങ് എന്ത് പുഴയുടെ വെള്ളത്തിൻ്റെ നടുവിലുള്ള ടെമ്പിൾ ആണ് അനന്തപദ്മനാഭ സ്വാമി ക്ഷേത്രം വെള്ളത്തിൻ്റെ നടുവിൽ ഉള്ള ടെമ്പിൾ ആണ് അവിടെ കുറെ വിസിറ്റേഴ്സ് മറ്റ് ഗസ്റ്റസ് എല്ലാം വരും ആ പദ്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പൊതുവെ അവിടെ ഇംഗ്ലീഷ്കാർ എല്ലാ വരുന്ന ഒരു ടെമ്പിൾ ആണ് അനന്തപദ്മനാഭി പദ്മനാഭസ്വാമി ക്ഷേത്രം അവിടത്തെ ഐതിഹ്യം എന്നു പറയുന്നത് മുതല അവിടത്തെ മെയിനാണ് ഒര് മുതല അത് അവിടുത്തെ പാര മുന്പേ ഉള്ളതാണ് പിന്നെ ഇവിടെ കാസർഗോഡിൽ ഭാഷ ഭാഷ മത മതം മതം നല്ലൊരു ഭാഷ എന്നുപറയുന്നത് കാസർഗോഡിൽ പലതര ഭാഷ ഭാഷ ഉള്ള ആൾക്കാർ ഉണ്ട് ത കന്നട മലയാളം ഇംഗ്ലീഷ് തെലുങ്ക് ഹിന്ദി ഇപ്പോൾ വേണമെങ്കിൽ മറ്റേ ആ ബയ്യമാർ ഹിന്ദിക്കാർ ആണ് ഇവിടെ അധികം ഇവിടെ മതത്തിനെ അങ്ങനെ പൊതുവെ ആരോരും ഇതിന് മുമ്പത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ എത്രയോ മെച്ചപ്പെട്ട് വരുന്നുണ്ട് മുൻപെന്ന് വെച്ചാൽ വർഗീയ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ജാതി സ്പിരിറ്റ് ഉള്ള നാടായിരുന്നു കാസർഗോഡ് ഹിന്ദു മുസ്ലിം വർഗീയമുണ്ടായിരുന്നു അങ്ങോട്ടുമിങ്ങോട്ടും എപ്പോൾ നോക്കിയാലും കലമ്പും എന്തെല്ലാമോ പ്രശ്നം ഉള്ള നാടായിരുന്നു കാസർഗോഡ് എന്നാൽ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ അല്ല ഇപ്പോൾ കാലക്രമേണ കുറേ മാറ്റങ്ങളിലേക്കാണ് കാസർഗോഡ് പോയിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഇത് അങ്ങോട്ടുമിങ്ങോട്ടും കലമ്പാനോ വർഗീയം പറഞ്ഞിട്ട് ഇതാക്കാനോ ഒന്തില്ല എല്ലാവരും ഒരോരോരോ ചുറ്റുപാടായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളത് ജോലി ചെയ്യുക വീട്ടിൽ പോവുക സെറ്റിൽ ആവുക ഫാമിലി നോക്കുക അങ്ങനെ ഉള്ള ആൾക്കാരാണ് ഇവിടെയുള്ളത് പിന്നെ ആചരണം എന്തെങ്കിലും ഒരു ആചരണം വന്നാൽ എന്തെങ്കിലും ഒരു അമ്പലകാ അമ്പലമാവട്ടെ തറവാടാവട്ടെ എന്തെങ്കിലും ഒരു വാർഷികം വന്നാൽ ആ നാട്ടിന് ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും കൂടും നമ്മളാൽ കഴിയുന്ന സഹായം അവിടെ ചെയ്യും എല്ലാവരും കൂടിയിട്ട് നല്ലൊരു സഹകരണം തന്നെയാണ് കാ നാട്ടുകാരതുള്ളത് പിന്നെ പുറമത്തെയാൾ നമ്മളെ നാട്ടിലൊക്കെ വന്നെങ്കിൽ അങ്ങനെ തന്നെ ഓർക്ക് ഓർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തുകൊടുക്കുന്നു നല്ല രീതിക്കുള്ള സഹായം ചെയ്തുകൊടുക്കും നല്ലൊരു സഹകരണമാണ് ഓർക്ക് ഓറെ ഒരു രീതിയിലുള്ളത് പിന്നെ യക്ഷഗാനമെല്ലാം പൊതുവെ ഉണ്ടാവാറുണ്ട് ഉത്സവസമയത്ത് യക്ഷഗാനം പിന്നെ ഗുണിതകജന നമ്മൾ ഉത്സവസമയത്തെല്ലാം ആ ഒരു സമയത്ത് യക്ഷഗാനം എല്ലാം പൊതുവെ ഉണ്ടാവാറുണ്ട് എന്നാൽ മുൻപ് മുൻപ് എല്ലാ സമയത്തും ഉത്സവസമയത്ത് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന യക്ഷഗാനം പിന്നെ തീക്കളി അങ്ങനത്തെ എല്ലാം ഉണ്ടാകും ഇപ്പോൾ പിള്ളേരെ ഭജന പിന്നെ സാംസ്കൃതികം എന്ന് പറയാനായിട്ട് ഇവിടെ പേരെടുത്തുള്ളത് നമുക്ക് ബാലഗോകുലം നമ്മളെ പിള്ളേർക്ക് ഹിന്ദു പിള്ളേർക്ക് ബാലഗോകുലം അതേ പോലെ മുസ്ലിം പിള്ളേർക്ക് ഓറെതായ മദ്രസ്സ അങ്ങനെ കാര്യങ്ങളൊക്കെ നാട്ടിലിപ്പോൾ മുമ്പത്തെനെക്കാട്ടി എത്രയോ മെച്ചപ്പെട്ടു വന്നിരിക്കുന്നു ഈ നാട് ആ പിന്നെ ഇവിടെ പ്രധാനമായി അമ്പലം കുറേ അമ്പലം ഉണ്ട് ഓരോരോ അമ്പലത്തിനും ഓരോരോ പ്രത്യേകത ഉണ്ട് അനന്തപദ്മനാഭ സ്വാമി ക്ഷേത്രം മദുർ മല്ലികാർജുന ഈ ഏരിയയിൽ ഫുൾ കുറേ ടെമ്പിൾ ഉണ്ട് കുറേ എന്നു വെച്ചാൽ കുറേ ടെമ്പിൾ ഉണ്ട് ആ ടെമ്പിളിൽ അത്ര തന്നെ പ്രത്യേകത ഉണ്ട് പിന്നെ ഇപ്പോൾ ഉത്സവസമയമാണ് ഉത്സവസമയത്ത് ഈ അമ്പലപരിസരത്തെല്ലാം ആ ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് അമ്പലത്തിൽ മൂന്നു നേരം രണ്ടു നേരം ഭക്ഷണം പിന്നെ കുറേ പരിപാടി യക്ഷഗാനം പിന്നെ അങ്ങനത്തെ കുറേ കുറേ എന്ന് പറഞ്ഞാൽ കുറേ പരിപാടികളുണ്ട് അപ്പോൾ അതെല്ലാം ആയികഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിത്തെ ദിവസം വെടി പിന്നെ പിള്ളേർക്ക് ഏകദേശം നമ്മളെ ഇവിടെ ചുറ്റുപാടുമുള്ള പിള്ളേർക്കെല്ലാം നല്ല ഒരു ഇത് ഉത്സവസമയത്ത് ഓർക്കാണ് അധികം ഫംഗ്ഷൻ അതെല്ലാം എല്ലാം ഉണ്ടാവുക പിന്നെ ഭാഷ ഭാഷ എന്ന് വെച്ചാൽ ഇവിടെ അധികം അധികം മലയാളീസുകളാണ് ഉള്ളത് മിക്സ് ഭാഷ ആ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം എല്ലാവർക്കും എല്ലാ ഭാഷ അറിയാം ജസ്റ്റ് ആയിട്ട് സംസാരിക്കും പിന്നെ മുമ്പത്തെനാട്ടി മുൻപ് ഭയങ്കര വർഗീയം ഒരാളെ കണ്ടെങ്കിൽ ഒരാൾക്ക് ആകുന്നില്ല അങ്ങനത്തെ എല്ലാം കലമ്പ് കൂട്ടുക എല്ലാം ഉള്ള നാടായിരുന്നു ഇപ്പോൾ പൊതുവെ എല്ലാവരും മാറിക്കൊണ്ടുവന്നു എല്ലാവരും ഒരോരോ ജീവിതശൈലി ഇതാക്കാൻ തുടങ്ങി ഒരോരോ ജീവിതത്തിലേക്ക് മാറാൻ തുടങ്ങി അതുകൊണ്ടിപ്പോൾ അങ്ങനെ മുൻപത്തേപ്പോലെ ഒന്തു ഒരൊറ്റ പ്രശ്നം ഇല്ല പിന്നെ കലമ്പും കൂട്ടവും ഒന്നും ഇല്ല എല്ലാവരും നല്ല ഒരു സൌഹൃദത്തിലാണ് ഇപ്പോൾ ഇത് പെരുന്നാളിനാവട്ടെ പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ ഹിന്ദുക്കളാടെ ഇന്നിറ്റു ജൂസ് അതും ഇതുമെല്ലാം കൊടുക്കും മുസ്ലിംസ് മുസ്ലിംസിൻ്റെ ഓറെ പിള്ളേരെ ഇത് റാലി എല്ലാം പോകുമ്പോൾ ഓർ കൊടുക്കും ഇപ്പോൾ ഹിന്ദുക്കളുടെയായാലും മുസ്ലിംസ് കൊടുക്കും നല്ല ഒത്തൊരുമയിലുള്ള നാടാണ് കാസർഗോഡ് ഇപ്പോൾ ഏ മുമ്പെത്തെനാട്ടി എത്രയോ മെച്ചപ്പെട്ടിരിക്കുന്നു നമ്മളെ കാസർഗോഡ് പിന്നെ പൊതുവെ പറയാർന്നെങ്കി സ്റ്റേജ് പ്രോഗ്രാം നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഉള്ളത് പിന്നെ ഫെസ്റ്റിവൽ ബേക്കൽ ഫെസ്റ്റ് ആ നമ്മളെ കാസർഗോഡ് മെയിൻ ആയിട്ട് ഇപ്പോൾ നടക്കുന്ന സംഭവമാണ് ബേക്കൽ ഫെസ്റ്റ് പിന്നെ എക്സിബിഷൻ പിന്നെ ആ മെയിൻ ആയിട്ട് എക്സിബിഷൻ ഏക്സ്പോ പിള്ളേർക്കെല്ലാം വേണ്ട രീതിയിലുള്ളത് ഏക്സ്പോ ആ നമ്മളെ ആ കാസർഗോഡിൽ അടിക്കടിക്ക് വരും പിളളർക്കെല്ലാം ഏക്സ്പോ എല്ലാം നല്ല ഒരു ഇതല്ലേ ആ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഏക്സ്പോ പിന്നെ പിന്നെന്നു പറയാൻ കാസർഗോഡുള്ള ഇപ്പോൾ സ്കൂളിലെ പൊതുവെ സ്കൂളിനെ എടുത്തു പറയാം ഞാൻ അപ്പോൾ സ്കൂളുകളിൽ ക്ലാ ഇപ്പോ പഠന ടൂർ മീൻസ് പഠന ടൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പിള്ളേരെ എല്ലാം അതിന് കൊണ്ടുപോകും പിള്ളേർക്ക് മുൻപത്തെ കാലത്തിലുള്ള എല്ലാ പഠന ഏരിയ കാണിച്ചിട്ട് മുമ്പത്തെനെക്കാട്ടി മെച്ചപ്പെടുത്താൻ ടീച്ചർമാരെല്ലാം നോക്കുന്നുണ്ട് അതിന് ഈ നമ്മളെ ഈ കാസർഗോഡ് എല്ലാവരും ഒത്തൊരുമയിൽ നിന്നിട്ട് എല്ലാവരും മാഷ്മാരും എല്ലാവരും ഒന്ന് ഒത്തൊരുമയിൽ നിന്നിട്ട് നോക്കുന്നുണ്ട് പഠന ക്ലാസ് ഉണ്ട് ഇപ്പോഴത്തെ ഫെസിലിറ്റി വെച്ച് നോക്കുമ്പോൾ പിള്ളേർക്ക് നല്ലൊരു ഭാഷവൽക്കരണന്നാ ഉള്ളത് പിള്ളേർ ഇപ്പോൾ കാസർഗോഡ് നാട്ടിൽ എല്ലാ പിള്ളേരും എല്ലാ ഭാഷയിലും അഡ്ജസ്റ്റ് ആവാൻ പഠിക്കുന്നുണ്ട് പൊതുവെ സാമൂഹിക പാരമ്പര്യങ്ങൾ എന്നു വെച്ചാൽ സാമൂഹിക പാരമ്പര്യങ്ങൾ എന്നു വെച്ചാൽ നമ്മൾ പിള്ളേർ എല്ലാം കൂടിയിട്ട് പരിസരം വൃത്തിയാക്കൽ എല്ലാമുണ്ട് എല്ലാം നടത്തുന്നുണ്ട് ഒരമ്പലത്തിൽ ഒരു വാർഷികം ആകട്ടെ ആ സമയത്ത് എല്ലാവരും ഒന്നിച്ച് കൂടുക അതിൻ്റെ ചുറ്റുപാട് എല്ലാം ക്ലീൻ ആക്കും ഫുൾ ഓർക്ക് എല്ലാ സഹകരണവും അതിന് വേണ്ടിയിട്ട് ചെയ്യും എല്ലാ സഹകരി സഹകരണങ്ങളും ചെയ്യലുണ്ട് എല്ലാവരും കൂടും ഉത്സവസമയത്തെല്ലാമാകുമ്പോൾ ഉത്സവസമയത്ത് എല്ലാവരും ഒന്നിച്ച് കൂടും ചെയ്തിട്ട് എല്ലാവരും ടീം വർക്ക് ചെയ്തിട്ട് നല്ലൊരു ഒത്തൊരുമ അത് ഹിന്ദു മുസ്ലിംസ് എന്നില്ല ഇപ്പോൾ ഓറെ ഏരിയയിലായിരിക്കും നമ്മൾ നമ്മളെ ഫ്ലാഗ് ഇടുക ദൈവത്തിൻ്റെ പോസ്റ്റർ ഒട്ടിക്കുക അപ്പോൾ ഓർക്ക് അതൊരു സഹകരണം തന്നെ ഓറും നല്ലവണ്ണം അതിനുവേണ്ടി നമ്മളൊന്നിച്ച് സഹകരിക്കുന്നുണ്ട് ആ നല്ല ഒരു സഹകരണം തന്നെയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഉള്ളത് അത് ഭാഷയിലായെങ്കും ആൾക്കാരെ പെരുമാറ്റത്തിലായെങ്കും നല്ല രീതിക്കുള്ള പെരുമാറ്റം തന്നെ ഇവിടെയെല്ലാം നടക്കുന്നതും പിന്നെ കാസർഗോഡ് ജില്ലയില് എടുത്തുപറയാന് നമുക്കമ്പലം നമ്മളെ അമ്പലം കുറേ അമ്പലം കുറേ വിസിറ്റിങ് പ്ലേസ് കുറേ നല്ല ഒരു നല്ല ഒരു ഏരിയ ആയിട്ടാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലനെ കാണാനുള്ളത് പിന്നെ പിള്ളേർക്കും മുമ്പത്തെക്കാലത്തെ യക്ഷഗാനം അതുമിതുമെല്ലാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉത്സവസമയത്തിൽ ഇതാക്കുന്നു പിന്നെ എക്സിബിഷന്റെ സമയത്ത് കാണിക്കുന്നുണ്ട് എല്ലാ തരംകൊണ്ട് കാസർഗോഡ് ജില്ല നല്ലതാണ്